ഹലോ പാൻ കാർഡിൻ്റെ ഹെൽപ് ലൈൻ അല്ലെ ഞാനെൻ്റെ പേര് ഷാജി കുര്യനെന്നാണെ ഞാൻ കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത് ഞാനൊരു പാൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞ മാസം റെസീപ്റ്റ് നമ്പർ ഏഴ് പൂജ്യം മൂന്ന് എട്ട് ആറ് രണ്ടെന്നാണെ ആ ഷാജി ആ എൻ്റെ എൻ്റെ ജനന തിയതി ജൂലൈ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അതിൻ്റെ ഇന്നിപ്പോഴത്തെ സ്റ്റാറ്റസ് ഒന്നറിയാൻ വേണ്ടിയായിരുന്നേ ആ ഇപ്പോൾ ഇതു കിട്ടാൻ താമസം ഉണ്ടാകുമോ അത് എങ്ങനാ വീട്ടിലോട്ട് അയച്ചു തരുവാണോ നമ്മൾ അവിടെ വന്ന് കളക്റ്റ് ചെയ്യാണോ ചെയ്യേണ്ടത് നമ്മൾ വീട്ടിലെ അഡ്രസ്സിലയച്ചു തരുമോ ആ ഇപ്പോൾ നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിന് ഈ പാൻ കാർഡ് ആവശ്യമാണല്ലോ എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് പാൻ കാർഡ് നിർബന്ധമാണിപ്പോൾ പിന്നെ അതുപോലെ എനിക്കൊരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അതിനു നമുക്കീ പാൻ കാർഡ് നിർബന്ധമാണിപ്പോൾ പാൻ കാർഡ് ഉണ്ടെങ്കിലേ ആ ട്രസ്റ്റിലെ ട്രസ്റ്റി ആകാൻ പറ്റുള്ളൂ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം അപ്പതിനുവേണ്ടി എത്ര നാൾ എടുക്കുമായിരിക്കും അതു കിട്ടാനായിട്ട് അധികം താമസം ഉണ്ടാകുമോ ഇനി എന്തെങ്കിലും രേഖകൾ തരാനുണ്ടോ അതോ എല്ലാം ആയിട്ടുണ്ടോ ഉണ്ടോ ആ അപ്പോൾ അതൊന്ന് അതിൻ്റെ വിവരമെന്നറിയാൻ വേണ്ടിയായിരുന്നു എത്ര ദിവസത്തിനകം കിട്ടുമായിരിക്കും ഒരു ഒരാഴ്ചക്കകം കിട്ടുമായിരിക്കുമോ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉടനെ തുടങ്ങിയാൽ എനിക്ക് കുറച്ചു പൈസ മോൾ അയച്ചു തരാനുണ്ടേ അപ്പം അത് എടുക്കുകയും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പാൻ കാർഡ് അത്യാവശ്യമാണ് അതുകൊണ്ടായിരുന്നു ഒന്നു കിട്ടിയാൽ ഉപകാരമായിരുന്നു അതെങ്ങനെ ഞാൻ അവിടെ അന്വേഷിക്കണോ ഒന്ന് കിട്ടുവാണേ ഉപകാരമായിരുന്നു ഓഫീസിൽ വന്ന് അന്വേഷിച്ചു നേരിട്ടു വന്നന്വേഷിച്ച് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ പറ്റുമായിരിക്കുമോ കോട്ടയത്തെ ഓഫീസിൽ